എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാകാരി അല്ലെങ്കിൽ പാട്ടുകാരി എന്ന് പറയുന്നത് കെ എസ് ചിത്ര തന്നെയാണ് അവരെ വെല്ലാനായിട്ട് ആരുമില്ല കാരണം അവരെ വെല്ലാൻ അവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ അഹങ്കാരം ഇല്ലായ്മയാണ് അവരെ അഹങ്കാരമില്ലാതെ എളിമയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പാട്ട് പാടുന്നതിൽ അവർ ശരിക്കും മനസ്സിൽ തട്ടി തന്നെയാണ് അവർ പാട്ട് പാടുന്നത് മനസ്സിലായോ അല്ലാതെ അവർ പാട്ടുകാരെല്ലാം അങ്ങനെ ആയിരിക്കാം എങ്കിൽ തന്നെയും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് കെ എസ് ചിത്രയെ പോലെ ഒരു നല്ല എളിമയുള്ള ഒരു പാട്ടുകാരി ഇല്ലെന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത്ര എളിമത്വം ആണ് അവർക്ക് കാരണമെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെർഫെക്റ്റ് ആണ് അവരുടെ ആ എളിമ ഏത് ഏത് വേദിയിൽ ചെന്നാലും അല്ലെങ്കിൽ ഏത് വേദിയിൽ കയറിയാലും അവരുടെ ആ ഒരു വന്ദനവും അവരുടെ ആ ഒരു ചിരിയും തന്നെയാണ് മനുഷ്യരെ കീഴ മനുഷ്യരെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള അവരുടെ ആ ഒരു ആകർഷണ മനോഭാവമെന്ന് പറയുന്നത് അല്ലാതെ ഇപ്പോൾ ഏത് ഏത് മേഖല എടുത്താൽ ഒരു കലാകാരനോ കലാകാരിയോ അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അഹങ്കാരം ഇല്ലായ്മയും അവരുടെ എളിമ തന്നെയാണ് ഒരു മനുഷ്യന് അത് അവർ പക്ഷേ അവർ ഏതെങ്കിലും ഒരു വേദിയിൽ വിളിക്കുമ്പോൾ അവരുടെ അഹങ്കാര ഭാവമോ പദവിയോ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യർ അംഗീകരിക്കുമോ ആ വ്യക്തിയെ ഇല്ല അത് ഏത് മേഖലകളിൽ തന്നെ ആണെങ്കിലും ഏതൊരു കലാകാരനോ കലാകാരിയോ ഇപ്പം അഹങ്കാരമില്ലാത്ത ഒരു നല്ല മനുഷ്യനായിട്ട് മാറുക എന്ന എന്നാണ് നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്നാ എടുക്കണം അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള ഒരു ഗായിക തന്നെയാണ് കെ എസ് ചിത്ര അതോടൊപ്പം തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ ഒരു തലമുറയിലെ സിതാര ആ പുള്ളിക്കാരിയേയും സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇപ്പോൾ റിമി ടോമി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല ഒരു പാട്ടുകാരിയെ സംബന്ധിച്ചിടത്തോളം റിമി ടോമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഇച്ചിരി ബഹളക്കാരിയാണ് ഏ അപ്പോൽ ബഹളക്കാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും പുള്ളിക്കാരിയുടെ ക്യാരക്ടറ് എന്നാലും പുള്ളിക്കാരിക്കും വലിയ അഹങ്കാരം ഒന്നുമില്ല അതായത് റിമി ടോമിക്കും വലിയ ജാഡ ഒന്നുമില്ല ഫ്രീ ആണ് പുള്ളിക്കാരി അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫ്രീ ആയിട്ട് വേണ്ട വർത്താനമൊക്കെ പറയുന്നു അതുകൊണ്ട് എനിക്ക് ഒന്ന് അതുകൊണ്ട് എനിക്ക് ആ കെ എസ് ചിത്രയോട് തന്നെയാണ് എനിക്ക് എപ്പോഴും മുൻതൂക്കം